കരകൗശല വസ്തുക്കൾ ഇന്ന് മാർക്കറ്റിംഗ് മാർക്കറ്റിംഗിനെ വളരെയധികം സ്വാധീനിക്കുന്നുണ്ട് പലതരത്തിലുള്ള കരകൗശല വസ്തുക്കൾ നമ്മുടെ വിപണിയിലുണ്ട് ഫാഷൻ ഡിസൈനിംഗ് പരസ്യം സിനിമ എന്നിവയിലെല്ലാം കരകൗശല വസ്തുക്കൾ ഇന്ന് സ്വാധീനം ചെലുത്തുന്നുണ്ട് ഫാഷൻ ഡിസൈൻ രംഗത്ത് ഒരു കോഴ്സായിട്ട് തന്നെ കരകൗശല കരകൗശലത്തെ പറ്റി പഠിപ്പിക്കുന്നുണ്ട് ചെറിയ ചെറിയ ക്ലാസ്സ് മുതൽ തന്നെ ഇതൊരു സബ്ജെറ്റായി ഇന്ന് പഠിപ്പിക്കുന്നുണ്ട്